ഞാനിവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കണത് എന്നു വച്ചാൽ ഞാൻ വേടിച്ച പ്രൊഡക്ടിൻ്റെ റിവ്യൂ ആണ് ഞാൻ വേടിച്ചത് ഒരു ഇലക്ട്രോണിക് പ്രൊഡക്ടായുള്ള ഹാവെൽസിൻ്റെ ഫാനാണ് ഞാൻ വേടിച്ചത് ഒര് റിമോട്ട് കൺട്രോൾഡായിട്ടുള്ള ഒരു ഫാനാണ് വേടിച്ചത് ഞാൻ വേടിച്ചപ്പോൾ ഞാൻ ബുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു ലൈക്ക് ലൈക്ക് അത് ഓൺലൈൻ ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെ വരും ലൈക്ക് ഡാമേജ് ഉണ്ടാവുമോ ആ പ്രൊഡക്ടിന് എന്നൊക്കെ ഞാൻ വിചാരിച്ചു ബട്ട് ആ പ്രോഡക്ട് എത്തിയപ്പോൾ ഇറ്റ് വാസ് നല്ല നല്ല വെൽ കണ്ടീഷൻഡ് ആയിട്ടായിരുന്നു ആ പ്രോഡക്ട് ഒന്നും ഒരു തകരാറും ഉണ്ടായിരുന്നില്ല ഒരു പാർട്സിനും റിമോട്ട് എല്ലാ പാർട്ട്സും ഉണ്ടായിരുന്നു ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈച്ച് ആൻഡ് എവരി പാർട്സ് ഇതിനകത്തുതന്നെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു കുറച്ച് പാർട്സ് ഒക്കെ ഒരുപക്ഷെ മിക്സ് മിസ്സിംഗ് ആവാം ഇനി വീണ്ടും ചിലപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടി വരും അങ്ങനെ കുറെ കുറെ ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഒരു പ്രശ്നവുമുണ്ടായില്ല എന്നിട്ട് ഹാവൽസിൽ നിന്നുള്ള ആളുതന്നെ വന്ന് നമുക്കത് ഫിറ്റ് ചെയ്ത് തരുകയും ചെയ്തു സൊ ഇത് നല്ലപോലെ വർക്ക് ആവുന്നുണ്ട് നല്ല സ്പീഡുമുണ്ട് നല്ല കാറ്റും വരണുണ്ട് ഞാൻ ഇത്ര അടിപൊളി ആയിരിക്കും ഈ പ്രൊഡക്ടെന്ന് വിചാരിച്ചില്ല ഈ ഫാന് നല്ലപോലെ വർക്ക് ചെയ്യണുണ്ട് ഈ പ്രൊഡക്ട് പൊതുവെ ഓൺലൈനിൽ നിന്നൊക്കെ വരണ പ്രോഡക്ട് ഒരു പക്ഷെ കംപ്ലൈൻ്റ് ഉണ്ടാവും ഇതിനാണെങ്കിൽ ത്രീ ഇയേർസ് വാരൻ്റിയും ഉണ്ട് നമുക്ക് വല്ല കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം സോ ഞാൻ വേടിച്ച ഫാനുകളിൽ ഏറ്റവും നല്ല അടിപൊളി ആയിട്ട് പെർഫോം ചെയ്യണ ഒരു ഫാനാണത് സോ ആരും ടെൻഷൻ അടിക്കേണ്ട എല്ലാവരും ധൈര്യമായിട്ട് ഈ ഓൺലൈനിൽ നിന്ന് ഫാന് ഓർഡർ ചെയ്യാവുന്നതാണ്